മൂന്നും അതിൻറ്റേതായ മൂന്നിലും അതിൻറ്റേതായ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നല്ലത് റേഡിയോകൾ റേഡിയോയാണ് കാരണം അതിലൂടെ ഏകദേശം ഒരാളാണ് സത്യസന്ധമായ കാര്യങ്ങള് നമുക്ക് പ്രൊവൈഡെയും മൊബൈല് വളരെ അധികം സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ് കാരണം എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ അതിൽകൂടെ ആർക്ക് വേണേലും എന്തെങ്കിലും ക്രീയെറ്റെയ്യാം പല തരത്തില് സത്യങ്ങളൂണ്ട് അല്ലാത്തതുമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതല് റേഡിയോകളിൽ കൂടി വരുന്നതാണ് എന്നാണ് എൻറ്റഭിപ്രായം കാരണം അതിൽ ഒത്തിരി അധികം ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല കുറച്ചാളുകൾ മാത്രം അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം നമുക്ക് കൂടുതലായിട്ട് വരത്തുള്ളൂ എന്നാണ് ഞാൻ കരുതുക പത്രങ്ങളിലും പത്രവും അതുപോലെതന്നെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങളില്ക്കൂടി കാരണം അതും ഒത്തിരി പേര് ഉപയോഗിക്കുന്ന വാർത്തകളല്ല കുറച്ചാളുകൾ മാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പത്രമാധ്യമം അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ അതുകൊണ്ട് ആ പത്രധർമ്മം നമുക്ക് കൂടുതൽ ഒത്തിരി തെറ്റുകളൊന്നും ഇല്ലാതെ സത്യസന്ധമായ കാര്യങ്ങളില് ഇതില് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് മൊബൈലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ വളര്ത്തുന്നത് കാരണം എല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്ന ഒന്നാണ് മൊബൈല് പക്ഷെ ഒത്തിരിയൊരു ഉപയോഗങ്ങളൂമുണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഉപകാര ഒത്തിരി ദുരി എന്താ പറയുക അസത്യമായ കാര്യങ്ങളും ഇന്ന് മൊബൈലിൽ കൂടെ ഓരോരുത്തരും മറ്റേത് രണ്ടും കുറച്ച് വ്യക്തികളിൽ നിൽക്കുന്നത് കൊണ്ട് കൂടുതല് സത്യസന്ധമായ കാര്യങ്ങള് കൂടുതൽ നല്ല പ്രയോഗങ്ങളിലൂടെ നമുക്കറിവ് നൽകുന്നു അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ മൊബൈൽ വഴി നമ്മള് കാണുന്നതും ഒത്തിരിയേറെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അതുപോലെന്നെ ഒത്തിരി കള്ളത്തരങ്ങള് മൊബൈലിൽകൂടി ഇന്ന് കാണിക്കുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളിലാണ് ഇത് സംഭ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് റേഡിയോയും പത്രങ്ങളുമാണ് പത്രമായിരിക്കും കുറച്ചുംകൂടെ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വാസിക്കു കാരണം എല്ലാവരുംകൂടെ ക്രോഡീകരിച്ച് അതിനെ കൃത്യതയിലേക്ക് നമ്മുടെ ഈ എല്ലാ ഒറ്റ ഇതിലേക്ക് ഒറ്റ ഫ്രെയ്മിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് റേഡിയോയും പത്രവും പത്രത്തിലൂടെയും അതുപോലെതന്നെ നല്ലതാണ് വരുന്നത് റേഡിയോയിലൂടെയും നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം ഒത്തിരി പേര് കൈകാര്യം ചെയ്യുന്നില്ല കുറച്ചാളുകള് കൃത്യ സത്യ സത്യസന്ധമായിട്ട് അതിനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ പത്രവും റേഡിയോയും ഒരു മനുഷ്യന് സത്യസന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകള് നൽകുന്ന ഒന്നാണെന്നു തന്നെ പറയാം അതിന് കുറച്ചാളുകൾ നം ഇത് മൊബൈലെന്നു പറയുന്നത് എല്ലാവരും യൂസെയുന്നു പലർക്കും പല അഭിപ്രായങ്ങൾ പല കള്ളത്തരങ്ങള് എന്നിവ ഉണ്ടാക്കുന്നു പക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ കൃത്യതയോടെ ഒത്തിരി ഇപ്പോള് നൂറിലെടുത്താൽ ഒരു പത്ത് പേര് അല്ലെങ്കില് ഇരുപത് പേര് കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് പത്രം അല്ലെങ്കിലന്പത് പേര് കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് റേഡിയോ പക്ഷെ മൊബൈലെന്ന് പറഞ്ഞാല് നൂറില് തൊണ്ണൂറ്റി എട്ട് ശതമാനവും യൂസെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് മൊബൈല് അത്ര അതല്ല പത്രവും റേഡിയോയുമാണ് അതു നൽകുന്നത്